ഞാനൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ട്രോളി ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രിപ്പ് പോകണമെങ്കിൽ രണ്ട് ദിവസം മുൻപാണ് എത്തും എന്ന് വിചാരിച്ചത് എന്തോ ആരുടെയോ ഗുരുത്വം കൊണ്ടു വന്നത് കറക്റ്റ് ട്രിപ്പ് പോകുന്ന ദിവസം അപ്പോൾ പാക്കിങ്ങ് കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക പെട്ടന്ന് ചടപടാന്ന് എടുത്ത് വയ്ക്കേണ്ടി വന്നു പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി മെറ്റീരിയൽ ഒന്നും ആയിരുന്നില്ല ഫൈബറിൻ്റെ മെറ്റീരിയൽ എന്നു പറഞ്ഞിട്ട് തനി എന്താ ലോക്കൽ പ്ലാസ്റ്റിക് മെറ്റീരിയലായിരുന്നു വന്നത് അതിൻ്റെ വീൽസ് മറ്റേ പിടിക്കണ ഭാഗത്തൊക്കെ ആകെ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഭയങ്കര പൊടി പിടിച്ച് ആയിട്ടൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സാധനം അത് എടുത്തു വച്ച് കുറേ കാലമായിട്ട് ഇങ്ങനെയൊക്കെ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന സാധനം അങ്ങനത്തെ ഒരു ഐറ്റമാണ് വന്നതെന്ന് തോന്നുന്നു അതു കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി റെയിൽവേ സ്റ്റേഷനിൽ സംഭവം ആ ട്രോളി ബാഗ് വലിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ആ സാധനത്തിൻ്റെ വീൽ ഊരി പോവുകയും ചെയ്തു